ഹലോ ആ പറയൂ ആരാണ് ആ ആ പറഞ്ഞിരുന്നു ആ എനിക്ക് അത്യാവശ്യമായിട്ടൊരു അഞ്ച് സെൻറ് അല്ലെങ്കിൽ ഒരു ഏഴ് സെൻറ് ഒരു വസ്തു ആയിട്ട് വേണമായിരുന്നു എനിക്ക് വീട് വയ്ക്കുന്ന ആവശ്യത്തിലേക്കായിരുന്നു കേട്ടോ ആ വല്ലതും കയ്യിൽ ഇപ്പം ക ആ എവിടെ ആയിട്ട് വരും അത് ആവനാട് ആ റോഡ് സൈഡിലായിട്ടാണോ സാറേ ആ റോഡ് ആ അല്ല അത് ആ വസ്തുവിന് വഴി നമുക്ക് അല്ലാതെ പഞ്ചായത്ത് വഴിയുടെ അടുത്തോട്ടായിട്ട് വരണം വെച്ചാൽ ഞങ്ങൾക്കേ ഒരു ചെറിയ ആപേ വണ്ടി ഉണ്ട് അപ്പം അത് കൊണ്ടുവന്ന് കയിറ്റിയിടണമല്ലോ അപ്പം അതിന്റെ സൗകര്യം കൂടെ നോക്കിയാണ് നമ്മൾ ഈ വഴി ഉള്ള ഒരു സ്ഥലം നോക്കുന്നത് അങ്ങനെ വണ്ടി കയറത്തക വഴി തന്നെ ആണല്ലോ അന്നെരം കിടക്കുന്നത് അന്നേരമേ ആ ചുറ്റുവട്ടം ഒക്കെ എങ്ങനെയാണ് നല്ല ആളുകളൊക്കെ താമസം നമുക്ക് വീട് വെച്ചൊക്കെ താമസിക്കാൻ പറ്റുമോ അതോ വേറെ വല്ല കാവോ കളരിയോ അങ്ങനെ വല്ലതുമൊക്കെ ഉള്ളതാണോ നാളെ നമുക്കൊരു ദോഷം വരേണ്ടല്ലോ

ആ ഭാഗം വെച്ചിരിക്കുന്നതാണ് ആ ആ ആ ആ ആ ആ അന്നേരം ഞങ്ങൾ റോഡിന്റെ ഫ്രണ്ടേജ് ഉള്ള വസ്തുവിനൊക്കെ എന്ത് വില വരും അകത്തോട്ടുള്ള വസ്തുവിനേക്കാളും വില കൂടുതൽ ആയിരിക്കുമല്ലോ ഓ സെൻറിന് അഞ്ചര ലക്ഷം അല്ലേ ആ ഒതുക്കാൻ പറ്റും ആ അന്നേരം ആ ആ പുറകിലോട്ടുള്ള പ്ലോട്ടിനും നമുക്ക് എന്ത് കിട്ടും പിന്നെ ഇനി വാ മറ്റേ വഴി നല്ല വഴി അവർ തരുമല്ലോ അപ്പോൾ നമ്മുടെ മുറ്റത്ത് വരെയും നല്ലോണം വണ്ടി കയറും ആ വരും ആ അപ്പം ഏഴ് ഏഴ് സെൻറ് സ്ഥലം സ്ഥലം ഉള്ള ആ ആ പ്ലോട്ട് നോക്കണം ഏഴ് സെൻറ് ഉള്ള പ്ലോട്ട് നോക്കിയാൽ മതി ആ ആ അന്നേരം അപ്പം അത് ആ അതൊന്ന് നോക്കിയിട്ട് അതിന്റെ വിലയൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് മാക്സിമം നാലിൽ താഴ്ക്കാൻ പറ്റുമെങ്കിൽ അത് നോക്കണം ശരി ശരി ഓക്കെ